മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ കാലക്രമേണ ഉണ്ടായ മാറ്റം എന്നു പറയുന്നത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മറ്റുഭാഷകളുടെ ഒരു അമിത പ്രസരം അല്ലെങ്കിൽ അമിത സ്വാധീനം എന്നു പറയുന്നത് വളരെ വലിയൊരു മാറ്റം നമ്മുടെ മലയാള ഭാഷയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളികൾ ഇപ്പോഴും ഇന്നത്തെക്കാലത്ത് മലയാളികൾ പലപ്പോഴും മലയാള ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായ സാഹചര്യങ്ങളിൽ ബാക്കി ഭാഷകളെ കുത്തിക്കയറ്റുന്നൊരു സാഹചര്യമുണ്ട് കൂടുതലായിട്ടും നമ്മൾ ഒരു നാഗരികത ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അപ്പം മലയാള ഭാഷ നമ്മൾ ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര പ്രാദേശിക ഭാഷയായിട്ട് തന്നെ ഒതുങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ട് മലയാളികൾ കൂടുതലും ബാക്കി വിദേശ ഭാഷകളെ കൂടുതൽ ആശ്രയിക്കുന്നത് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു